കേരളം സന്ദർശിക്കുമ്പോൾ വിനോദ സഞ്ചാരികൾക്ക് കാണാവുന്ന സംസ്ഥാനത്തെ ജനപ്രിയ പ്രാദേശിക ബാൻഡുകളിൽ ഒന്നാണ് തൈക്കൂടം ബ്രാ ബാൻഡ് അതിൽ കേരളത്ത് അവർ സിനിമ മേഖലയിലും അല്ലാതെ വേറെ ത പുറത്തായാലും അവർ കേരളത്തെ പറ്റി ഉള്ള തനിത കേരളത്തിൻ്റെ തനിതായ സൗന്ദര്യത്തെ പറ്റി പറയുന്ന കുറേ പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട് അത് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് രണ്ടാമതെന്നു പറയുന്നത് നാടകങ്ങളാണ് കഥകളും നാടകങ്ങളും ആണ് പണ്ട് പഴയകാല കഥകൾ അവർ നാടകത്തിലൂടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുറേ കലാകാരന്മാർ പണ്ടത്തെ കഥകൾ പഴയ കാലങ്ങളിലെ കഥകൾ ഉൾപ്പെടുത്തി ഒരു നാടകം പോലെ അവർ അമ്പലങ്ങളിലും ഒക്കെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് കലകളിൽ മറ്റൊന്ന് പറയുന്നത് കഥകളിയാണ് അതിൽ കഥകളിയിലെ സംഗീതവും അതിലെ ചിത്രങ്ങളും എല്ലാം ഉൾക്കൊളി കഥകളിയായിട്ട് കേരളത്തിൽ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ് ഈ കഥകളി എന്ന് പറയുന്നത് മൂന്നാമതെന്ന് പറയുന്നത് മോഹിനിയാട്ടം ആണ് കേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള അതിലെ വേഷവും അതിലെ ഭാവങ്ങളും നൃത്തവും എല്ലാം കൂടിയിട്ട് നൃത്തവും ഏറെ ആകർഷിപ്പിക്കുന്ന ഒന്നാണ് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അത് കേരളത്തിലെ മാത്രം പ്രത്യേകതയാണ് വിനോദസഞ്ചാരികളെ മറ്റൊന്ന് ആകർഷിക്കുന്നത് എന്ന് വെച്ചാൽ മലയാള സിനിമ ആണ് മലയാള സിനിമയിലെ കുറേ കഥകൾ സിനിമയിലെ കഥകൾ കഥകൾ പ്രവാസികളെ കഥകളും എല്ലാം നാടൻ പുറത്തെ കഥകൾ എല്ലാം ഉള്ള കഥകൾ എല്ലാം ഈ കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ ആകർഷകമാണ് കൂടാതെ അതിലെ ഓരോ പാട്ടുകൾ സിനിമ പാട്ടുകൾ കൂ ഉൾപ്പടെ ഉദാഹരണത്തിന് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് എന്ന് പറയുന്നത് ഈ കടവുകളിലും പുഴയിലും കാണപ്പെടുന്ന മീനുകൾ മാത്രമുള്ളതല്ല കേരളത്തിൽ കിട്ടാവുന്ന മീനുകൾ മാത്രമുള്ളതും അതെല്ലാം വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്